ഇപ്പോൾ പാട്ടൊക്കെ പാടും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അനുസ്മരണീയമായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ടൊക്കെ പാടുമ്പോൾ എല്ലാവരും കയ്യടിക്കാറുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ നല്ല രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു പ്രോത്സാഹന സമ്മാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പം വളരെ അധികം സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറ് അപ്പോൾ മെയിനായിട്ട് ഞാൻ പാട്ടൊക്കെ പാടാറുള്ളത് ഈ ആർട്സ് സ്കൂളിൽ മേളകൾ പിന്നെ ഉത്സവപ്പറമ്പിൽ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് പാട്ടുപാടാറുള്ളത് അപ്പം നല്ല രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ആ സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്